ഇപ്പോൾ ഇന്ത്യ നേരിടുന്ന പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ നദികൾ മൂടുന്നു അതായത് നദികളിലെ വെള്ളമൊക്കെ വറ്റുന്നു കാരണം എന്താണെന്നു വെച്ചുകഴിഞ്ഞാൽ നമ്മളിപ്പം എല്ലായിടത്തും മരംമുറിയൊക്കെ നടക്കുന്നുണ്ട് അപ്പം മരംമുറി നടക്കുമ്പോൾ ജലത്തിലെ എല്ലാ ഇതും നഷ്ടപ്പെടുകയാണ് അതായത് വെള്ളം വറ്റുക പിന്നെ മണ്ണിടിക്കുക അതായതിപ്പോൾ നദികളൊക്കെ മൂടിയിട്ട് അവിടെ ഫ്ലാറ്റും അങ്ങനെത്തെ ഇങ്ങനെത്തെ ഒക്കെ പണിയുക അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ പല പ്രശ്നങ്ങളും അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ കുന്നുകളിടിക്കുക മലകൾ നികത്തി അവിടെ വീട് വെക്കുക റിസോർട്ട് പണിയുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ കൃഷിയിടങ്ങളൊക്കെ നികത്തിയിട്ട് എല്ലാവരും ഫ്ലാറ്റ് റോഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീടുപണിയുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഭൂമിയിലേയ്ക്ക് വലിയ നഷ്ടമാണുണ്ടാകുന്നത് പിന്നെ മണ്ണ് അങ്ങനത്തെ അങ്ങനത്തെയൊക്കെ എന്തു ചെയ്യുക പുറത്തേക്ക് മണ്ണ് കയറ്റി അതായത് മണ്ണ് എടുത്തു കഴിയുമ്പോഴത്തേക്കും അവിടെ ഇടിയുക അങ്ങനെ ഉരുളുപൊട്ടലുണ്ടാകും പിന്നെ മരംമുറി എല്ലാം നടക്കുന്നതുകൊണ്ട് ഉരുളുപൊട്ടൽ ഭയങ്കരമായിട്ട് കൂടുതലാണിപ്പോൾ പിന്നെ മഴപെയ്തു കഴിയുമ്പോഴത്തേയ്ക്ക് ഈ ഓവ് ചാലൊക്കെ അടഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ റോഡിൽ എല്ലാ സ്ഥലത്തും വെള്ളം കയറില്ലേ അതായത് ഇപ്പം എന്താ പറയുക വീട്ടിലടക്കം വെള്ളം കയറുന്ന ഒരു ഇതാണുള്ളത് അപ്പോൾ അതൊക്കെയാണ് ഇന്ത്യയിലിപ്പം നടക്കുന്ന പ്രധാന പ്രശ്നങ്ങളായിട്ട് എനിക്ക് തോന്നുന്നത്